ആ ഞാൻ ഗ്രീഷ്മയാണ് ആ ഞങ്ങൾ ഞാൻ രണ്ട് കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്

ഒന്ന് എൽ കെ ജിയും ഒന്ന് നാലാം ക്ലാസ്സും കുട്ടി ഞങ്ങൾ ട്രാൻസ്ഫർ ആയപ്പോൾ എന്താ ഇവിടെ വന്ന് അപ്പ്രോച്ച് ചെയ്തതാണ് ഏയ് അങ്ങന ഒന്നും ഇല്ല കുട്ടി നീറ്റ് ആണ് ആ ആ ഓക്കേ ഓക്കേ ഞങ്ങൾ കെ വിയിലായിരുന്നു മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നത് ചേർത്തിട്ടുണ്ടായിരുന്നത് പിന്നേ ഞങ്ങൾ അത് ഞങ്ങൾ പറഞ്ഞല്ലോ എന്ത് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി അപ്പം അതുകൊണ്ട് ഇവിടെ കംഫർട്ടബിൾ അപ്പം ഇങ്ങോട്ട് വന്നതാണ്

ഓക്കേ ഓക്കേ

ആ അതേ ഫീസ് ഒക്കെ ഫീസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്

ആ ആ ആ ഓ അത് അത് സ്കൂള് തരില്ല ആല്ലേ പ്രൊവൈഡ് ചെയ്യില്ല ആല്ലേ ആ ഓക്കേ ഓക്കേ

ടൈമ് ഒക്കെ എപ്പോഴാണ് അപ്പോൾ ആ ആ ആ ഓക്കേ

ഓക്കേ ഓക്കേ ഓക്കേ

ലൈബ്രറി ഒക്കെ ഇല്ലേ

ഓക്കേ ഓക്കേ ആ ഓക്കേ ഞാൻ വിളിക്കാം എന്തായാലും ആള് നേവിയിലാണ് ആ അയക്കാം അയക്കാം ആ ശരി ഞാൻ കോൺടാക്ട് ചെയ്യാം